ഹലോ നമസ്കാരം ജല അതോറിറ്റി അല്ലേ ഞാൻ എൻ്റെ വീടിന് മുറ്റത്ത് ശ്രദ്ധയിൽ പെട്ട കുറച്ച് ഈർപ്പം കണ്ട് അതിൻ്റെ ആശങ്കകളും വിശദാംശങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് താങ്കൾക്ക് വിളിച്ചത് അത് എൻ്റെ വീട് വഴിക്കടവ് ഭാഗത്താണ് ഞാൻ ഒരു ഇന്നലെ ഏഴ് മണിക്ക് എൻ്റെ വീടിൻ്റെ വീട്ടുമുറ്റത്തുള്ള പൂന്തോട്ടം പരിപാലനം ചെയ്യുമ്പോഴാണ് നിലത്ത് വേലിക്ക് സമീപം ചെറിയ ഈർപ്പമുള്ള പാടുകൾ ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെ അത് ഈർപ്പത്തിൻ്റെ പാട് അന്വേഷിച്ചും ഈർപ്പത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചു ഞാൻ പോയ പോകുകയായിരുന്നു വേലിയുടെ തോട്ട് അപ്പുറത്തായിട്ട് ഒരു ഉറവ എനിക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജല അതോറിറ്റിയായ താങ്കളെ സമീപിക്കുന്നത് ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്ഥലത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ താങ്കളോട് പറയുകയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് വലിയ വിശാലമായൊരു പാടവും അതിന് തൊട്ട് അപ്പുറത്ത് ഒരു പുഴയുമുണ്ട് ഇതായിരിക്കും ഇവിടെ ഈർപ്പത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതായിരിക്കും ഈ ഒരു നനഞ്ഞ പിച്ചിൻ്റെയും പാച്ചിൻ്റെയും ഒക്കെ സാധ്യതകൾ എന്നും ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ പാടത്ത് വെള്ളം കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് ഒരുപക്ഷെ എൻ്റെ വേലിക്ക് അരികിലേക്ക് വരാനാണ് സാധ്യത ഇതിനെക്കുറിച്ച് താങ്കൾ കൂടുതൽ വിശദമായി പഠിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കട്ടെ ഓക്കെ ശരി എൻ്റെ വിവരങ്ങൾ കേട്ടതിനും എനിക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ തിരിച്ച് നൽക നൽകിയതിനും താങ്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ കോൾ കട്ട് ചെയ്യുന്നു നന്ദി